ഹലോ കൊറിയര് കൊറിയര് അല്ലേ ഞാന് ഈ പണിക്കൻകുടിയിൽ നിന്നായിരുന്നു വിളിക്കുന്നത് സൂഫീ എന്ന് പറയുന്ന ആളായിരുന്നു ഞങ്ങൾക്ക് ഒരു കൊറിയറ് ഉണ്ടായിരുന്നല്ലോ അതൊന്ന് എന്നത്തേക്ക് എത്തിച്ച് തരും കേ ഇവിടെ പണിക്കകുടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവിടെ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത് അതൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് എത്തിച്ച് തരണവായിരുന്നല്ലോ ഞാന് പണിക്കൻകുടി പള്ളിയുടെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് എത്തിച്ച് വേണമായിരുന്നല്ലോ ആ കൊണ്ടുവരും ഞാന് എപ്പഴത്തേക്ക് വരും ഞങ്ങൾക്ക് ഒരു അതേ അല്ലെ ഞങ്ങൾക്ക് ഒരു യാത്ര പോകണമായിരുന്നു അപ്പം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അടുത്ത അയൽവക്കത്തെ വീട്ടിലൊന്ന് കൊടുക്കാന് പറ്റുമോ ആ ആ ഞങ്ങൾ ഇച്ചിരി ദൂരെക്കായിരുന്നു യാത്ര ചെയ്യുന്നത് അന്നേരം ഇപ്പം നമ്മളിനി ഇപ്പം എന്നാ ചെയ്യാന് പറ്റും അത് ഞങ്ങൾ എന്നാ വിദേശത്തേക്ക് പോകുകയായിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ടേ വരികയുള്ളായിരുന്നല്ലോ ആ

ആ അപ്പം നിങ്ങളത് തിരിച്ച് അങ്ങോട്ട് തന്നെ എടുക്കുവാണോ ചെയ്യുന്നത് അതെയോ ഞങ്ങൾ വന്ന് കഴിയുമ്പം ഞ്ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുവാണോ ചെയ്യുന്നത് എന്താ അതിന്റെ പോളിസി ആ അപ്പം എന്നാൽ ഞങ്ങൾ രണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഞങ്ങൾ വരത്തുള്ളു അപ്പം അന്നേരത്തേക്ക് എന്നാ സാധനം എത്തിക്കാന് പറ്റുമോ

ആ പറയാമല്ലോ അടുത്ത അടുത്ത വീട്ടുകാരെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുപേര് ചേര്പ്പോട്ടെന്ന് പറയും ആ അവിടുത്തെ ചേട്ടന്റെ നമ്പർ തന്നേക്കാം തൊണ്ണൂറ്റിനാല് നൽപ്പത്തി ആറ് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് എന്നാണ് നമ്പർ നാൽപ്പത്തി ആറ് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് ആ ഈ നമ്പരിൽ വിളിച്ച് ആ ആ ആ ഹാ ആ പാ കുഴപ്പമില്ല ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല ഞങ്ങൾ അടുത്ത അവിടെ എത്തിച്ചാൽ മതി ഞങ്ങളത് വാങ്ങിച്ചോളാം അവിടെ നിന്ന്

ആ അതെ അ

ആ ആ ശരി ആ ആ അപ്പം ഞങ്ങൾ അടുത്ത മാസത്തേക്ക് ഒക്കെയേ വരികയുള്ളൂ ആ ആ ആ ആ ആ ശരി ആ ഓക്കെ